അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ ആണെങ്കിൽ ഞങ്ങളുടെ ഈ ഇവിടെ ഇപ്പം സമൂഹത്തിൽ അങ്ങനെയൊരു ഇത് കാണിക്കുന്നില്ല പഴയ കാലത്തൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊരു ഒരു ഒരു ഇതൊക്കെ കുട്ടികൾക്ക് കാണിക്കുന്ന ഇങ്ങനെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെയാണെങ്കിൽ കുട്ടികൾ പാരമ്പര്യമായിട്ടുള്ള നൃത്ത രീതികളൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഇല്ലായെന്ന് തീർത്ത് പറയാനായിട്ട് പറ്റത്തും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ കുറച്ചൊക്കെയായിട്ട് നമ്മുടെ പാരമ്പര്യ നൃത്ത രീതികളൊക്കെ ഇപ്പോഴ് കുട്ടികൾ ഇപ്പം കുട്ടികൾ പഠിച്ച് വരുന്നുണ്ട് യുവാക്കളുടെ കാര്യത്തിൽ എനിക്കത്ര ഇതില്ല കാരണം നമുക്ക് അത് വലിയ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കാണിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികൾക്ക് മറ്റുള്ള ഈ കലാ അതായത് മാർഗംകളിയാണെങ്കിലും പിന്നെ അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ അവർ പരിശ്രമിക്കുന്നുണ്ട് ചെയ്യാനായിട്ട് യുവാക്കളിൽ അങ്ങനെയൊന്നും കാണാനായിട്ട് കാണുന്നില്ല സത്യം പറഞ്ഞാൽ